ഹലോ ചേട്ടാ ഞാൻ നേരത്തെ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രാമൻ എനിക്ക് കൊല്ലത്തേക്കായിരുന്നു ഓട്ടം വിളിച്ചിരുന്നത് അപ്പോൾ ഞാൻ അവടെ നിന്നപ്പോഴത്തേന് ചേട്ടൻ വരാൻ അരമണിക്കൂർ ലേറ്റായി അപ്പോൾ എനിക്ക് വേറൊരു ഓട്ടോ വന്നപ്പോൾ എനിക്ക് രാമൻകുളങ്ങരയിലോട്ടും ഇറങ്ങാൻ ഇറങ്ങണമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വന്ന ഓട്ടോയിൽ കയറി ഞാൻ ഇപ്പോൾ രാമൻകുളങ്ങരയിൽ ഇറങ്ങി പക്ഷെ എനിക്ക് കൊല്ലത്തായിരുന്നു പോവേണ്ടത് അപ്പം ചേട്ടന് അപ്പം അപ്പോൾ രാമൻകുളങ്ങരയിലോട്ട് കൊല്ലത്തോട്ടാണോ വരുന്നത് അല്ല കൊല്ലത്തോട്ട് വരുമോ കൊല്ലത്തോട്ടെനിക്ക് പോവണായിരുന്നു അപ്പം ഈ ഞാൻ ഇപ്പോൾ രാമൻകുളങ്ങരയിൽ നിൽക്കുകയാ അപ്പോൾ എങ്ങനെയാ രാമൻ എനിക്ക് വേറൊരു ഓട്ടോ പറഞ്ഞുവിടുമോ അതോ അവർ രാമൻകുളങ്ങരയിലോട്ട് വരുമോ എങ്ങനെയാ ഞാൻ എനിക്ക് കൊല്ലത്ത് അത്യാവശ്യം ആയിട്ട് പോവണേനു ഇപ്പോൾ രാമൻകുളങ്ങരയിൽ എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഇപ്പോൾ എങ്ങനെ അങ്ങോട്ട് വരുമോ രാമൻകുളങ്ങരയിൽ നിൽക്കുകയാ അതോ വേറെ ഓട്ടോ വല്ലതും പറഞ്ഞുവിടുമോ എങ്ങനെയാ ഒന്ന് പറയാമോ എന്നിട്ടൊന്ന് വരാം വരണേ